ഇന്ത്യയിലെ സാങ്കേതികവിദ്യ വിദ്യാഭ്യാസം വിനോദം വ്യാപാരം ഗതാഗതം തുടങ്ങിയ മേഖലകളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ട് വന്ന ഒരുപാട് ആൾക്കാരുകൾ ആൾക്കാരുണ്ട് നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാങ്കേതികവിദ്യയാണെങ്കിൽ നമുക്ക് ചാൾസ് ബബേജാണ് നമുക്ക് കമ്പ്യൂട്ടറെന്ന ഇത് കൊണ്ട് വന്നത് അപ്പോളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടർ കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഉപകാരമുണ്ട് ഇപ്പോൾ വിദ്യാഭ്യാസമേഖലകളിലും വിനോദത്തിലാണെങ്കിലും വ്യാപാരത്തിലാണെങ്കിലും ഗതാഗതത്തിലാണെങ്കിലും എല്ലാറ്റിലും നമുക്ക് കമ്പ്യൂട്ടർ അതായത് ഇപ്പം ഇപ്പോഴെന്ന് വെച്ചാൽ ഡിജിറ്റൽ കാലമാണ് എല്ലാ കാര്യത്തിലും നമുക്ക് ഇതൊക്കെ ഉപയോഗ അതായത് ഉപകാരപ്രദമാണ് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ

അതായത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങളായി നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട് കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ഫുള്ളും അതായത് സാങ്കേതികവിദ്യേൻ്റെ ഒരു ലോകമാണ് നമുക്കിപ്പോൾ വിദ്യാഭ്യാസത്തിനാണെങ്കിൽ നമുക്ക് സാങ്കേതിക അതായത് നമുക്കിപ്പോൾ ഒരു പാസായ നമ്മളിപ്പോൾ പാസായോ ഫെയിലായോ എന്ന് നോക്കാണേ നമുക്ക് സാങ്കേതിവിദ്യേൻ്റെ ഉപകാരം വേണം ഉപയോഗം വേണം പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഗതാഗതത്തിൻ്റെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും നമുക്കിപ്പോൾ സാങ്കേതികവിദ്യത്തി വിദ്യേൻ്റെ കാലഘട്ടങ്ങളാണ് ഇപ്പോൾ നടന്നു കൊണ്ടിരിക്കുന്നത്